ആ അതെ സാറെ അതെ അതെ അതെ ആ സാറെ ഇപ്പം ഞാൻ പ്ലസ്ടു കഴിഞ്ഞു ഇല്ല സാറെ അങ്ങനെ നമ്മൾ സ്ക്കൂൾ ടീമിലൊക്കെ കളിച്ചിട്ടുണ്ട് അല്ലാണ്ട് കോച്ചിങ്ങായിട്ടൊന്നും അങ്ങനെ പുറത്തെവിടേക്കൊന്നും പോയിട്ടൊന്നുമില്ല അതെ അതെ അതെ ഇല്ല ഇതിപ്പോൾ പണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ പോകാറൊന്നുമില്ല അപ്പോൾ അതൊക്കെയാണ് മെയിൻ ഉദ്ദേശം ഇപ്പോൾ സ്റ്റാമിന ഒക്കെ കിട്ടാൻ ഇല്ല ഇല്ല ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഇല്ല ഇല്ല ഇല്ല ബോഡിയിൽ ആ ഒരു പ്രശ്നമൊന്നുമില്ല അതെ നമ്മൾ ഫോർവേഡ് ആണ് നമ്മുടെ പൊസിഷൻ പിന്നെ നമ്മൾ അതിനെ മിഡും കളിക്കും അല്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫോർവേഡ് തന്നെ ആണ് നമ്മൾ ചൂസ് ചെയ്യണത് ഓ ഒക്കെ സാറേ ആ അത് സാറേ ഇവിടൊരു കുറച്ച് അടുത്ത് തന്നെയാണ് അവിടെനിന്ന് ഓക്കെ സാറേ ആ ഓക്കെ ആ ആ ആ ഓക്കെ ആ കണ്ടിട്ടുണ്ട് സാറേ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ

ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ സാറെ ഓക്കെ സാറെ ഇല്ല സാറേ ബൂട്ടൊക്കെ ഉണ്ട് പാഡും എല്ലാം ഉണ്ട് കിറ്റുണ്ട് കയ്യിൽ ഉണ്ട് ഉണ്ടുണ്ടുണ്ട് ഓക്കെ സാറെ ഓക്കെ

അത് സാറേ ഫീസ് എത്രയാണ് ഇതിന്

ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ സാർ

ഓക്കെ സാർ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ